എൻ്റെ മികച്ച ചിത്രം എന്നു പറയുന്നത് ഒരു മലയുടെ കീഴെ ഒരു കുടിൽ അതിനു ചുറ്റും തെങ്ങ് ഒരു കോഴിക്കൂട് മലയിലെ സൈഡിൽക്കൂടി ഉദിച്ചുവരുന്ന സൂര്യൻ മുകളിൽക്കൂടി പറന്നുപോവുന്ന പ്രാവുകൾ ഇതൊക്കെയാണ് ഞാൻ വരച്ച ഒരു മികച്ച ചിത്രം അത് ഏകദേശം വരച്ചുതീരാൻ വേണ്ടി ഏകദേശം ഒരു മൂന്നു മണിക്കൂർ നാലു മണിക്കൂർ എടുത്തിട്ടുണ്ട് അതിൽ പെയിൻ്റ് കൊടുത്ത് ഭംഗിയാക്കി ഫിനിഷിംഗ് ടൈമിലേക്ക് വരുമ്പോൾ ഏകദേശം നാല് അഞ്ചു മണിക്കൂറോളം വരും ഇതാണ് എൻ്റെ മികച്ച ചിത്രം